ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങളെ പ്രതി പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ധാരാളം മാർഗ്ഗങ്ങളുണ്ട് ആദ്യമായി തന്നെ നമ്മുടെ പരിസരത്തും വീടിനകത്തുമൊക്കെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളോ അല്ലെങ്കില് ചിരട്ടകളോ അങ്ങനെയുള്ള തെല്ലാം നമ്മള് കമഴ്ത്തിവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു രീതിയിലും കൊതുക് വളരാനായിട്ടുള്ള ഒരു മാധ്യമം നമ്മുടെ വീടിലോ പരിസരത്തോ നമ്മളൊരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല തൊട്ടടുത്തൊക്കെ റബ്ബർ തോട്ടങ്ങളെോ ഓടകളോ ഒക്കെയുണ്ടെങ്കില് അവിടെ നമ്മള് റബർ മരങ്ങളിലെ പാല് കളക്ട് ചെയ്യുന്ന ചിരട്ടകളൊക്കെ നമ്മള് കൃത്യമായിട്ട് കമിഴ്ത്തിവയ്ക്കാനും ഓടകളൊക്കെ വെള്ളം ഒഴുകി വിടാനും ഒരിക്കലും ജലം കെട്ടിനിൽക്കുന്ന രീതിയില് നമ്മുടെ പരിസരത്ത് നമ്മുടെ പ്രദേശത്ത് നമ്മളനുവദിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ജലങ്ങളൊക്കെ നമ്മളൊഴുക്കി വിടാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ശ്രദ്ധിക്കുക ആണെങ്കില് നമ്മള് തീർച്ചയായിട്ട് നമുക്ക് ഒരു പരിധിവരെ ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകള് പ്ലാസ്റ്റിക് കവറുകള് ചിരട്ടകള് ചെറിയ ചെറിയ പാത്രങ്ങള് തുടങ്ങിയവയൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും പ്രദേശ സ്ഥലങ്ങളിലുമൊക്കെ ഈ ഹോണ്ടയില് അതില് മഴവെള്ളം വീഴുകയും അതില് മഴവെള്ളം കെട്ടിക്കിടക്കുകയും അതിനകത്ത് കൊതുക് മുട്ടയിട്ടു പെരുകി പെരുകുകയും ചെയ്യുന്നു ഈ കൊതുകുകളാണ് ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകുകയും മനുഷ്യൻ്റെ അമ്മ് ജീവനു തന്നെ അത് ഭീഷണിയായി മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോള് ഇങ്ങനെ നമ്മുടെ നമ്മുടെ പരിസരം നമ്മള് വെള്ളം കെട്ടിക്കിടക്കാതെ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മള് വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കുകയാണെങ്കിൽ പരിപാലിക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങള് വരുന്ന കൊതു പരത്തുന്ന കൊതുകുകളെ നമുക്കൊരു പരിധിവരെ തടയാൻ പറ്റുന്നതാണ് കൊതുകു വളരുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മള് ഇല്ലാതാക്കുക അങ്ങനെ ഇല്ലാതാക്കയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ ത രോഗങ്ങള് പരത്തുന്ന കൊതുകുകളെ നമുക്ക് ഇല്ലാതെയാക്കാനായിട്ട് പറ്റും